എൻ്റെ പ്രദേശത്ത് ആളുകൾ സാധാരണ അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ പകർച്ച വ്യാധിയായിട്ടാണ് അതിപ്പോൾ ഒരാൾക്കു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും അതായത് ചില ചില പനികളൊക്കെയുണ്ടല്ലോ പണ്ടൊക്കെ ഈ എച്ച് വൺ എൻ വൺ കൊറോണ അങ്ങനത്തെ കാലത്തൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ പകർന്നിട്ടുണ്ടായിരുന്നു പകർച്ച വ്യാധിയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലായിടത്തും വൃത്തിയൊക്കെ കുറവാണ് ഇപ്പോൾ റോഡിലൊക്കെയാണെങ്കിലും ആകെ വൃത്തികേട് ഇപ്പം മഴക്കാലത്താണെങ്കിൽ പ്രത്യേകിച്ച് വൃത്തികേടുമാണ് പല രോഗങ്ങളും നമുക്ക് പിടിപെടുകയും ചെയ്യും ഇപ്പോൾ ഒരാളടുത്തു നിന്ന് ഒരാളുമായിട്ട് ഇങ്ങനെ പകർച്ചവ്യാധികൾ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പം നമുക്ക് നടുവേദന അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷെ അവിടെയിപ്പോൾ പനിയോ എന്തെങ്കിലുമുള്ള ഒരസുഖമുള്ളൊരാളെ ഇപ്പോൾ അവരൊന്ന് തുമ്മിയാൽ മതി നമുക്ക് പകർച്ചവ്യാധിയൊക്കെ വരാൻ വേണ്ടിയിട്ട് പിന്നേ എന്നുവച്ചിട്ടുണ്ടെങ്കിൽ പോഷകാഹാരക്കുറവെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും കുട്ടികൾക്കു ചില കുട്ടികൾക്കൊന്നും അങ്ങനെ ഭക്ഷണമൊന്നും കിട്ടാതെ അത് പാവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരുടെ കുട്ടികൾക്കൊക്കെ പോഷകാഹാരക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് പകർച്ചവ്യാധിയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരും അത് നമ്മൾ കുറേ പേര് സൂക്ഷിക്കില്ല എല്ലാവരും എല്ലാവരുടേയും ഇഷ്ടത്തിന് തോന്നിയത് പോലെ നടക്കും അതൊക്കെ കൊണ്ടാണ് മെയിൻ പ്രശ്നം വരുന്നത്